നൂറ്റി അമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആറ് ലക്ഷത്തി പതിനാറായിരത്തി നാന്നൂറ്റി അമ്പത്തി ആറ് ഏഴ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന്